എനിക്ക് പിക്ക്നിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം എന്നത് പാർക്ക് പാർക്ക് വാട്ടർ തീം പാർക്കുകളാണ് എനിക്ക് പിക്ക്നിക്ക് പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം അവിടെയെന്ന് വെച്ചാൽ ഇപ്പോഴൊരു നമ്മളൊരു വാട്ടർ തീം പാർക്കിൽ പോയാൽ രാവിലെ കയറിയാൽ രാത് ഒരു അത് അടക്കുന്നത് വരെ വൈകുന്നേരം ഒരു ഏഴുമണി വരേ നമുക്ക് അതിൽ കളിയ്ക്കാൻ ഒരു പാട് സ്ഥലങ്ങളുണ്ട് വാട്ടർ തീം പാർക്കെന്ന് പറയുമ്പോൾ അതിൽ ഒരു പാട് പാർക്കുകളുണ്ടാകും തൊട്ടിൽ തോണി അതുപോലെ കപ്പ് സോസർ അതുപോലെ ഇലക്ട്രിക്ക് ഉപകരണങ്ങൾ പിന്നെ ത്രീ ഡി ഷോസ് ഉണ്ടാകും പിന്നെ അതുപോലെ ഹൊറർ ഹൊറർ മൂവീസ് കാണിക്കുന്നൊരു സ്ഥലമുണ്ടാകും അങ്ങനെ ഒരുപാടൊരുപാട് സ്ഥലങ്ങൾ അവിടെയുണ്ട് അപ്പം എനിക്കിഷ്ടം അവിടെ തന്നെയാണ് അവിടെ ഇപ്പം ഒരു ഒരു ഒരു നമ്മളൊരു ടിക്കറ്റെടുത്ത് പോയാൽ അവിടെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയം ചിലവഴിക്കാനും അതുപോലെ ഒരു പാട് പൂളുകളിൽ ഇറങ്ങി കളിക്കാനും പിന്നതുപോലെ വാട്ടർ ഡാൻസ് അതൊക്കെ കാണാനും ഒരു പാട് ആൾക്കാരുണ്ടാകും ഒരു പാട് ആൾക്കാരുടെ ഇടപെട ഇടപെടാനും ഇടപഴകാനും അതുപോലെ നല്ലൊരു രസമല്ലേ ഇപ്പം ഫ്രണ്ട്സായിട്ടൊക്കെ പോകുമ്പോൾ അടിപൊളിയായിരിക്കും അവിടെയൊക്കെ പോകുമ്പോൾ അത് അവിടെ സമയം ചിലവാക്കിക്കാതെ സമയം പോകുന്നത് അറിയില്ല